ഹലോ ഊബര് ടാക്സി സർവീസ് അല്ലേ ഓക്കേ ഞാനേ പാലക്കാട് വരെ പോകാനായിട്ട് ടാക്സിയുടെ റേറ്റ് ഒന്നറിയാന് വേണ്ടിയിട്ടായിരുന്നു ആ അ അത് തന്നെ അങ്ങനെ തന്നെ ആ ഞങ്ങള് ഞങ്ങള് ഫാമിലിയായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഒര് ട്രിപ്പ് പോകാൻ ഇല്ല റിട്ടേണൊന്നുമല്ല അങ്ങോട്ട് മാത്രമേ ഉള്ളൂ നാല് പേര്ക്ക് പോകാൻ പറ്റുന്ന വണ്ടി റേയ്റ്റ് എത്രയാണ് വരിക ആണോ അവിടെ വരെ പോകാനായിട്ട് ഇവിടെ ആ ചെറുവാ പല്ലശ്ശേരിയില് നിന്നാണ് അതേ അങ്കമാലി ഓക്കേ ഓക്കേ അതിപ്പം ആറുപേര്ക്കാകുമ്പോൾ എത്ര രൂപയാവും ആണല്ലേ ഓ അത്രയും വ്യത്യാസം വരുവല്ലേ ഓക്കേ ഓക്കേ നാല് പേരുടെ ആകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്ന് പോകുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലൊ ആ ഓക്കേ ഓക്കേ ആ ശരി ശരി താങ്ക്യൂ ഞാന് എന്തായാലും വീട്ടില് ഒന്ന് സംസാരിച്ചിട്ട് കോള് ബാക്ക് ചെയ്യാം ഓക്കേ താങ്ക്യൂ